ആ രാജേഷേട്ടാ നമ്മുക്കെ ആ വീട് ഏട്ടന് വേണന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നില്ലെ രണ്ട് നിലയാണ് അപ്പം എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും ആ ഇപ്പം എങ്ങനയാ വാടകയ്ക്ക് ആണോ വിലക്ക് മേടിക്കാൻ ആണോ നോക്കണെ വിലയ്ക്ക് മേടിക്കാനാണ് ഓക്കെ രണ്ട് നില വീട് ഇല്ലെ ഓ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റ താഴെ വീട് എങ്ങനെയാണ് ഉദ്ദേശിക്കണ് നിങ്ങള് പഴയ മോഡല് വേണോ അതോ ഓ പുതിയ ഒരു ആർസി വീട് ആണോ ഉദ്ദേശിക്കുന്നെ അതോ പഴയ രണ്ട് നില പഴയ ഓട് ഇട്ട എങ്ങനെ അതാ ഉദ്ദേശിക്കുന്നത് ഏതാ വേണ്ടെ ആർസി വീട് ഇല്ലെ കിണറ് ഓക്കെ ടൗണിന് അടുത്ത് വേണോ അതോ മറ്റെ കുറച്ച് മാറി ഗ്രാമത്തിൻ്റ അവിടേക്ക് വേണോ ഏതാ വേണ്ടെ ഓക്കെ ആ അപ്പം ടൗണും വേണ്ട ശരി ഇപ്പം ഒരു വീട് ഉണ്ട് നിങ്ങളുടെ ബെഡ്റൂമ് അത് എങ്ങനെയാ അതിലെ ആവുമ്പം ഉള്ള ഒര് വീട്ടില് എങ്ങനെയാണെന്നൂ വെച്ച് കഴിഞ്ഞാല് അടിയില് രണ്ട് ബെഡ്റൂമ് ഉണ്ട് അതിൽ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമ് ആണ് കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ട് ഉണ്ട് പുറത്ത് ഡോറ് തുറന്നാൽ ഹോൾ ആണ് ഹോള് ആ അവിടത്തന്നെ രണ്ട് മാസ്റ്റർ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആണത് പിന്ന വന്നിട്ട് ആ ഒര് ഡൈനിംഗ് ഉണ്ട് അതില് ഓക്കെ ആ ഒര് പൂജാമുറി ഉണ്ട് ഒര് കോമൺ ബാത്റൂമും ഉണ്ട് പിന്ന കിച്ചൺ വർക്ക് ഏരിയ ഇത് ആണ് അതില് അടിയിൽ വരുന്നത് ആ പിന്നെ മുകളിൽ വന്നിട്ട് ഒര് ബെഡ്റൂമ് ഒര് ഹോള് ഒരു സിറ്റ് ഔട്ട് പോലെ തന്നെ മുകളിൽ വരുന്നുണ്ട് ഓപ്പൺ ആണ് കുറച്ച് പിന്നെ അതിൻ്റ മുകളിലേക്ക് തന്നെ ആണ് വാട്ടർ ടാങ്ക് വരിക വാട്ടർ ടാങ്ക് വന്നിട്ട് ഒരു ആയിരത്തി രണ്ടായിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റ രണ്ടായിരത്തി എണ്ണൂറ് ലിറ്ററിൻ്റ ഇട്ടിട്ട് വാട്ടർ ടാങ്കും ഉണ്ട് മുകളില് ചെറിയ ഒര് ഇതില് വാട്ടർ ടാങ്ക് ഉണ്ട് അത്യാവശ്യം മുകളില് തുണിയും കാര്യങ്ങൾ ഒക്കെ ഒണക്കാൻ ഇള്ള രീതിയിൽ ഒരു ഗ്യാപ്പും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും ആ അവിടെ കുഴപ്പം ഇല്ല അല്ല കൃഷി എങ്ങനെയാ നോക്കാ അത് നോക്കാനാ ആ പച്ചക്കറിക്ക് ഇടാൻ ഉള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഇവിട ബാക്കില് കുറച്ച് സ്ഥലം ഉണ്ട് അത് മൊത്തം ഒരു എട്ടും എട്ടും പതിനാറ് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റ അടുത്ത് ഉണ്ടാവും ആ സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ആ അതും കൂടെ ആണ് അപ്പം അത്യാവശ്യം സ്ഥലം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഫ്രണ്ടിലും കുറച്ച് സ്ഥലം ഉണ്ട് ബാക്കിലും സ്ഥലം ഉണ്ട് ഫ്രണ്ടിന്ന് രണ്ട് കാറിന് പാർക്കിംഗ് ഉണ്ട് ഇവര് പാർക്കിംഗ് ഒര് ഇത് ഒര് കാറും രണ്ട് ബൈക്കും നിർത്താൻ ഉള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഓൾറെഡി അത് നമ്മട വീട്ടിനോട് ചേർന്നിട്ട് മഴ ഒന്നും കൊള്ളില്ല പ്രൂഫ് കാര്യങ്ങൾ ഉള്ളത് ആണ് പിന്നെ ഒര് രണ്ട് കാർ ഒക്കെ ഇടാ ഫ്രണ്ടില് രണ്ടോ മൂന്നോ കാർ ഒക്ക ഇടാം മതിലിന് അതായത് ഒരു പത്ത് അടി ഉണ്ടാവും മതില് പത്ത് ഒര് പത്ത് അടി അല്ല ഒരു പത്ത് ഇരുപത് ആ ഒരു ആ ഒര് അഞ്ച് എട്ട് മീറ്ററിൻ്റ അടിത്ത് ഉണ്ടാവും ഡോറിലേക്ക് അതായത് ഗേറ്റിലേക്ക് അപ്പൊൾ അവിട തെങ്ങും കാര്യങ്ങൾ ഒക്ക വെയ്ക്കാം പിന്നെ കൃഷിയും കാര്യങ്ങൾ ഒക്കെ ചെയ്യാം അതില് നമ്മക്ക് ഇപ്പം അവര് പറ അവര് മറ്റെ പീസ് ആക്കാന്ന് ഒക്ക പറഞ്ഞ് ഉണ്ടായിരുന്നു പീസ് റേറ്റ് വേണ്ട നിങ്ങൾക്ക് മൊത്തത്തില് എടുക്കുകാന്ന് പറയുമ്പം നമ്മക്ക് ഒര് പീസ് ആക്കി വിൽക്കുമ്പോൾ സെൻറ്റിന് രണ്ടര ലക്ഷം വെച്ചിറ്റ് ആണ് പറഞ്ഞ് ഉണ്ടായിരുന്നത് അപ്പം ഇരുപത്തഞ്ച് സെൻറ്റിന് അമ്പത് അമ്പത് അറുപത് സെൻറ്റ് അമ്പത് അറുപത് വരും നമുക്ക് ഒരു നാപ്പത്തഞ്ചിന് പിടിക്കാം അത് ഒര് കമ്മി ആകുവൊന്ന് ഉള്ള കാര്യം ഡൗട്ട് ആണ് നാപ്പത്തഞ്ചിന് ആകുമ്പോൾ കുഴപ്പം ഇല്ലല്ലൊ ആ അപ്പോൾ നിങ്ങൾ എങ്ങനെയാ ക്യാഷ് നിങ്ങള് നേരിട്ട് അവരോട് സംസാരിക്കണോ അതോ നമ്മള് അവരെ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങളെ വിളിക്കണോ എങ്ങനെയാ വേണ്ടെ അപ്പം നിങ്ങക്ക് മറ്റെ ഇപ്പം തൽക്കാലം നമ്മക്ക് ഒന്ന് പോയി കണ്ടിട്ട് വീട് ഒന്ന് കണ്ടോളൂ ഇനി ഇപ്പം അതിൽ ഒര് അഭിപ്രായം വേണ്ട ഇപ്പം രജിസ്ട്രേഷൻ വേണ്ടാന്ന് വെക്കാം വീട് സംഭവം ഞാൻ കണ്ടത് ആണ് കുഴപ്പം ഒന്നും ഇല്ല നല്ലത് ആണ് വേണെൽ ജസ്റ്റ് ഒന്ന് ഇരിക്കണേന് മുമ്പ് ഒന്ന് പെയിൻറ്റ് വേണമെങ്കിൽ അടിക്കാം കാരണം അവര് ഇപ്പം ഒരു ചുമരും അഞ്ച് രണ്ട് മൂന്ന് മാസം ആയിട്ട് ഇപ്പം അവിടെ താമസം ഇല്ല അതിന് മുമ്പ് വരെ ആൾക്കാര് താമസം ഉണ്ട് കുഴപ്പം ഇല്ല നല്ല കണ്ടീഷൻ ഒക്കെയാ അവിടെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി വീട് കണ്ടിട്ട് ഇരിക്കണ സമയത്ത് അവര് പെയിൻറ്റ് അടിക്കുന്ന മാത്രം ഉണ്ടാവും പിന്നെ അതിൽ അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങൾ ഒക്കെ അതിൽ ഉണ്ട് രണ്ട് കട്ടിലും പിന്ന ഡൈനിംഗ് ഹോളും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അയില് ഡൈനിംഗ് ഹോളിലെ ലൈനിൻ്റ എല്ലം പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഒക്കെ അതിന് അകത്ത് ഉണ്ടാവും എലക്ട്രോണിക്സ് ഐറ്റംസ് അല്ല നമുക്ക് കിടക്കണ്ട കട്ടില് സോഫ അങ്ങനത്ത ഒന്ന് രണ്ട് സാധങ്ങൾ ഒക്ക അതിൻ്റ ഉള്ളിൽ ഉണ്ട് എല്ലാ ഫർണിച്ചറും നല്ലത് ആണ് പുതിയ ഫ്രഷ് സാധനങ്ങൾ ആണ് ഒന്നും പഴയത് അല്ല അതിന് ഒക്കെ അതിന് ഒന്നും നമ്മള് വില കണക്കാക്കുന്നില്ല

ആ അപ്പൊൾ എപ്പഴേക്കാ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പത്തന്നെ പോകണമെങ്കിൽ ഇപ്പം തന്നെ പോകാം ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ആൾക്കാര് ആയി ഒന്ന് രണ്ട് ആള് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മള് കൈ കൊടുക്കാണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മക്ക് കാര്യങ്ങള് സെറ്റില് ചെയ്യാം ഒര് ചെറിയ അഡ്വാൻസ് നിങ്ങള് സംസാരിച്ചിട്ടെ ശരി എന്നാൽ വിളിച്ചാൽ മതി നോക്കീട്ട് വന്ന് വിളിച്ചാ മതീട്ടോ